ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ ആ ഞാനൊരു ഗ്യാസ് സിലിണ്ടർ ബുക്കഉ ചെയ്യാൻ വേണ്ടി ആണേ വിളിക്കുന്നതേ ഞാൻ നേരത്തേ കാട്ടാക്കടയായിരുന്നു ഇപ്പോൾ ഞാൻ വെള്ളടയിലോട്ടു മാറിയേ ഇപ്പം നിങ്ങളുടെ അവിടേയ്ക്ക് ഒരു കണക്ഷൻ ഏജൻസി എൻ്റെ ഒരു ഐ ഡി വൺ സീറോ വൺ എയ്റ്റെന്നാണെ അപ്പം അഡ്രസ്സും പുത്തൂർ ഹൗസും മായം എന്നാണ് ഓക്കെ അപ്പോൾ പിന്നെ ഇത്രയും മാറിവന്നിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് ഒരു എത്രയും പെട്ടെന്നു തന്നെ കണക്ഷൻ എടുത്തു തന്നാൽ വലിയ ഉപകാരമായിരുന്നു